ഹലോ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ആലപ്പുഴയിൽ നിന്ന് അടുത്ത സൺഡേ വയനാട് വരെ ഒന്ന് പോവണം ഞങ്ങൾ ഒരു പത്തു പേരുണ്ട് പോകുവാനായിട്ട് അതിനായിട്ട് ആവശ്യമായ അതിന് ഞങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ഒരു വണ്ടി അറേഞ്ച് ചെയ്തുതരണം പത്ത് പേർക്ക് നല്ല സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്തവിടം വരെ പോകുവാനായിട്ട് സാധിക്കണം മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇടയ്ക്കിടക്ക് കാഴ്ച്ചകൾ കണ്ടുപോകാനും ആവശ്യമുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലത്ത് ഇറങ്ങി കാഴ്ചകൾ കാണാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരിക്കണം വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു വണ്ടിയായിരിക്കണം ട്രാവലറ് പോലെയുള്ള വണ്ടികളായിരിക്കും ഏറ്റവും ഉചിതം എ സി ഉണ്ടായിരിക്കണം അത്തരത്തിൽ വളരെ പത്ത് പേർക്ക് പോയിവരാനുള്ള നല്ലരീതിയിലുള്ള ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരണം ഞാറാഴ്ച്ച രാവിലെ ആറുമണിക്ക് ഇറങ്ങുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വൺ ഡേ ട്രിപ്പ് കിട്ടുമോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതറിയാനായിട്ടാണ് ഞാൻ വിളിച്ചത് അത് എനിക്ക് അറേഞ്ച് ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു